ഹലോ ചെറിയാപ്പോ നമുക്ക് നമ്മള് നിൻ്റെ പാസ്പോർട്ടിൻ്റെ ഇതൊക്കെ ഏകദേശം റെഡി ആയെന്ന് തോന്നുന്നു ദുബായിക്ക് പോകാനുള്ളത് പരിപാടിയേ നീയ് പോരുന്നില്ലേ പിന്നേ നമുക്ക് അവിടെ കുറെ കാണാന് ഉണ്ട് ചങ്ങായിയെ പാസ്പോർട്ടും കാര്യമൊക്കെ ശരിയായാലേ സംഗതി നിൻ്റെ ശരിയായോ ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയെന്നാണ് തോന്നുന്നത് ഏഹ് നമുക്ക് അവിടെ മറ്റേ ബുർജ് ഖലീഫയൊക്കെ വലിയ സംഭവമാണ് അതൊക്കെ കാണണ്ടേ ഇതൊക്കെ നമ്മള് ഇങ്ങനെ ഇവിടെ ടീവിയില് ഇതില് ഫോട്ടത്തിൽ ഒക്കെ അല്ലെ നമ്മള് കണ്ടിട്ടുള്ളു നേരിൽ പോയി കാണാം നമുക്കേ നിൻ്റെ നോക്ക് റെഡി ആയോന്ന് നോക്ക്